പുതിയ സിനിമകൾ പ്രദർശിപ്പിക്കുന്ന കേരളത്തിലെ തീയേറ്ററുകളെക്കുറിച്ചിട്ടൊന്നും എനിക്കറിവില്ല കാരണം നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് തീയറ്ററിലൊന്നും പോകാറില്ല നമ്മളെ വീട്ടിലിങ്ങനെ ടീവിയിൽ വരുന്ന സിനിമകൾ കാണുക എന്ന് തന്നെയാണ് അല്ലാതെ അതിൻ്റെ ടിക്കറ്റിന്റെ നിരക്ക് എത്രയാണ് അങ്ങനെ വലിയ വലിയ കോംപ്ലക്സുകളൊന്നും പോയിട്ട് സിനിമ കാണാൻ നമുക്കാവില്ല ടീവിയിൽ വരുമ്പോൾ കാണും അല്ലാണ്ട് നമ്മളങ്ങനെ പോവാറൊന്നുമില്ല